ഞാൻ ഇതുവരെ ദേശീയ തലത്തിലൊന്നും പങ്കെടുത്തിട്ടില്ല എന്നാലും സ്കൂളിലും കോളേജിലുമൊക്കെ നടക്കുന്നതിൽ പങ്കെടുത്തിട്ടിണ്ട് എങ്ങനെ ആണെന്ന് വച്ചാൽ ഫോട്ടോ അയച്ചു കൊടുക്കും എന്നിട്ട് അങ്ങനെ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ ടൂർ പോകുമ്പോൾ ട്രിപ്പ് പോകുമ്പോഴൊക്കെ ഫോട്ടോ എടുക്കാൻ നല്ല താൽപര്യമുണ്ട് വ്യക്തികളുടെ ഫോട്ടോ എടുക്കണനെകാട്ടിം നല്ലത് മറ്റ് പലതിനേയും ഫോട്ടോ എടുക്കാനാണ് എനിക്ക് താൽപര്യം ഇത് പിന്നേ മത്സരം മത്സരത്തിൽ പങ്കെടുക്കുന്നത് അല്ലല്ലോ ഒരു വലിയ കാര്യം നമ്മൾക്ക് എന്താണോ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മൾക്ക് കഴിയുന്നത് സാധികരിക്കുക അതൊക്കെ അല്ലേ നമ്മുടെ ആവശ്യം അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക മത്സരത്തിൽ പങ്കെടുക്കണം എന്ന് നിർബന്ധം ഒന്നുമില്ലല്ലോ ട്രിപ് പോകുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞില്ലേ മനുഷ്യന്മാരുടെ ഫോട്ടോ എടുക്കുന്നതിനെ കാട്ടിയും മറ്റ് പലതിൻ്റേയും കിളികളുടെയും നാച്ചുറലായ ക മലകളുടെയും അരുവികളുടെയും ഫോട്ടോ എടുക്കാനാണ് എനിക്ക് വളരെ താല്പര്യമുള്ളത്